എൻ്റെ വയനാട് പ്രദേശത്ത് ടിപ്പുസുൽത്താൻ്റെ ഒരു കോട്ടയുണ്ട് ഒട്ടുമിക്ക സിനിമകളിലും കോട്ട ഞാൻ അതിൽ കണ്ടിട്ടുണ്ട് അതുപോലെതന്നെ ഒരുപാട് കരകൗശല വസ്തുക്കളും ഗാന്ധിഗ്രാമങ്ങൾ പോലെയുള്ള കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളും ഒരുപാട് സിനിമകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് മികച്ച കലാകാരന്മാരുള്ളതാണ് വയനാട് ജില്ലയിൽ വയനാട് ജില്ല പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നതായതുകൊണ്ട് തന്നെ ഒരുപാട് അമൂല്യ വസ്തുക്കളും ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന സസ്യങ്ങളും കാര്യങ്ങളും നമ്മുടെ കാട്ടിലെല്ലാമുണ്ട് അതുപോലെതന്നെ പണ്ട് തൊട്ടേയുള്ള ഓരോ പാരമ്പര്യമായ ആളുകളും ആദിവാസി മേഖലകളില് നിന്നും ഒട്ടനവധി കരകൗശല വസ്തുക്കൾ ഉൽപാദിപ്പിക്കുകയും അവയെല്ലാം പലപ്പോഴായി സിനിമകളിലും വന്നിട്ടുണ്ട് അതുപോലെതന്നെ കാടിൻ്റെ ഭംഗിയും പല സിനിമകളിലും എടുത്തിട്ടുണ്ട്